വളരെ ഏറെ നന്ദി ഉണ്ട് ഇന്നലെ രാത്രി ഇത്രയും ഇരുട്ടി ഇരിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അപ്പോൾ എന്നെ കൊണ്ട് വന്ന് എത്തിച്ചതില് വളരെ നന്ദിയുണ്ട് ഒരു വളരെ സുരക്ഷിതമായി ഞാനെൻ്റെ വീടെത്തി ഒരുപാട് നന്ദി